ഏറോബിക് വ്യായാമങ്ങൾ പോലെ നീന്തൽ ഹൃദയരോഗത്തിന് ഫലപ്രദമാണ് നീന്തൽ ഹൃദയത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഗയും അപ്പോഴാണ് ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യുന്നു ഓക്സി ശ്വാസകോശത്തിന് ഓക്സിജൻ്റെ അളവു കൂട്ടുന്നു നീന്തൽ ശരീരത്തിനും ഹൃദയത്തിനും മികച്ചൊരു വ്യായാമം തന്നെയാണ് ദിവസവും ഒരു മണിക്കൂർ നീന്തുന്നത് കലോറി കുറയ്ക്കാൻ സഹായിക്കും തീവ്രത കുറഞ്ഞ വ്യായാമമാണ് നീന്തൽ ആസ്മയുള്ളവർക്ക് മികച്ചൊരു വ്യായാമം കൂടിയാണ് നീന്തൽ കാരണം ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ട് കൂട്ടുന്നു അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും സിസ്റ്റവും സിസ്റ്റം പ്രവർത്തിക്കാനുള്ള മികച്ചൊരു മാർഗ്ഗമാണ് നീന്തൽ നീന്തുന്നവർക്ക് അത്യാവശ്യം അവരെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ശരീര ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു അവരുടെ ബോഡിയെ നല്ല ഫിറ്റ് ഏൻറ്റ് ഹെൽത്തിയാക്കി സൂക്ഷിക്കാനും സഹായിക്കും